ഇപ്പം കായികത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ഏറ്റവും കൂടുതലും ക കായികവിനോദങ്ങളാണ് നമ്മൾ വളർന്ന് വന്നു കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്കാണേലും ഏറ്റവും കൂടുതൽ ക്രേസായിട്ടുള്ളത് ഫുട്ബോൾ എന്നു പറയുന്ന കായികവിനോദമാണ് അപ്പം നമ്മൾ അതിനെ കൂടുതലായിട്ടും വളർത്തിയെടുക്കുകയും അതിലേയ്ക്ക് വേണ്ടിട്ടുള്ള പിള്ളേരെ നമ്മൾ പിള്ളേരെ വളർത്തിയെടുക്കുകയും കോച്ചിങ് കൊടുക്കുകയും മുതലായവയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലായും കളിക്കുവാനായിട്ടുള്ള സ്ഥലങ്ങളും ആവശ്യമായിട്ടുണ്ട് ഗ്രൗണ്ട് ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരിടത്തും സ്പോർട്സിന് വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഇന്നത്തെ കാലമായതുകൊണ്ട് തന്നെ എല്ലായിടത്തും വീടുകളും മറ്റ് സംഭവങ്ങളൊക്കെയാണല്ലോ വളർന്ന് വരുന്നത് അപ്പോൾ ഈ കളി സ്ഥലങ്ങളും പാടങ്ങളുമെല്ലാം നികത്തിയിട്ടാണല്ലോ ഇവർ ഫ്ലാറ്റും കാര്യങ്ങളെല്ലാം പണിയുന്നത് അപ്പോൾ അങ്ങനെ ഒക്കെ സംഭവിക്കുമ്പോൾ കായികം മേഖലയിലേയ്ക്ക് ഉള്ള കുട്ടികളുടെ അളവ് കുറയുകയും അവർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ കുറയുകയും ചെയ്യുന്നതിലൂടെ നമ്മളുടെ കായിക കായിക ഇനങ്ങൾ നമ്മൾ നശിപ്പിക്കുകയാണ് ഏറ്റവും കൂടുതലും ചെയ്യുന്നത് മുതലായപ്പോൾ ഫുട്ബോളിനെ പറ്റി പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതലും ക്രയിസുള്ളത് ഫുട്ബോളിനോടാണ് കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേയ്ക്കും പ ഈ കഴിഞ്ഞ ലോക കപ്പിലാണെൽ തന്നെ എല്ലായിടത്തും കട്ട് ഓഫും കാര്യങ്ങളും ഒക്കെ ആയിരുന്നല്ലോ എന്ന് അപ്പം അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ എല്ലാവർക്കും ഈ കായിക കായികത്തോടുള്ള ഒരു ആവേശവും സ്പിരിറ്റും എന്നത് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് അവരെയാണല്ലോ അപ്പോൾ ആ ആ ഒരു സ്പോർട്സിന് നമ്മൾ വളർത്തിയെടുക്കുകയും നമ്മുടെ അഭിമാനമായിട്ട് മാറുകയുമല്ലേ ചെയ്യേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായി മാറുകയും കുറെ കുട്ടികളെ അതിലേയ്ക്ക് വളർത്തിയെടുക്കുകയും അവരെ ജയിപ്പിക്കുകയും അവർക്ക് വേണ്ടി കോച്ചിങ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ രാജ്യത്തിന് ആയിരിക്കുമല്ലോ അതിൻ്റെ മേന്മ കിട്ടുകയും ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി സഹായിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ വരുമ്പോഴേയ്ക്കും അങ്ങനെ വരുമ്പോഴേയ്ക്കും കുട്ടികളുടെ കായിക ക്ഷമത വർധിപ്പിക്കുകയും ഈ മൊബൈൽ ഫോണിന്റെയും അങ്ങനത്തെ കാര്യങ്ങളുടെ എല്ലാം ഉപയോഗം കുറയുകയും ചെയ്യുന്നതിലൂടെ ഓരോ കുട്ടിയേയും ആരോഗ്യവാനായിട്ടുള്ള ഉള്ള കാര്യങ്ങളും ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുവാൻ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യാൻ സാധിക്കുന്നു ഇപ്പോൾ ഈ സ്കൂളുകളിൽ ആണെങ്കിൽ തന്നെ ഇപ്പം ഈ സ്പോർട്സ് ഡേ എന്നൊക്കെ വരുമ്പോഴേക്കും കുട്ടികൾ കൂടി കൂടി വരുകയാണ് അങ്ങനെ കൂടി കൂടി വരുമ്പോഴേക്കും നമുക്ക് സ്പോർട്സിനെ കൂടുതൽ കുട്ടികളുടെ എണ്ണവും വളരെ അധികം കൂടുന്നു വളരെ അധികം കൂടുന്നു അങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതലും കുട്ടികളെ ഇതിലേക്ക് പ്രചോദിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും വേണം നമ്മൾ ചെയ്യാൻ അങ്ങനെ വളർത്തി എടുക്കുന്നതിലൂടെ ഓരോ വീടു ഓരോ കുട്ടികളും മെച്യുർഡായി വന്നിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ഓരോ കുട്ടികളുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് നമ്മൾ നടത്തി കൊ കൊണ്ടോ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതലും കുട്ടികളെ സഹായിക്കുകയും അതിലേയ്ക്ക് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ വരുന്നതിലൂടെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ വന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരെ വളർത്തുവാനും അവർക്ക് ഇഷ്ടപ്പെട്ട കായിക രീതിയിൽ അവർക്ക് വളരുവാനും സഹായിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പം ഒരു പഞ്ചായത്തിൽ ചെന്ന് അവർക്ക് കളിക്കുവാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളും നമ്മൾ ചോദിക്കണം അവർക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു തലമു തലമുറയെ വാർത്തെടുക്കുകയും ചെയ്യാൻ പറ്റും ഈ സ്പോർട്സ് സ്പോർട്സ് ഇനങ്ങളിലേയ്ക്ക് കുട്ടികളുടെ അളവ് കുറയുകയും ചെയ്താൽ പിന്നെ കുട്ടികൾ വീട്ടിൽ തന്നെ ഇരിപ്പാവുകയും ചെയ്യും ഫോണി തന്നെ നോക്കുകയും ചെയ്യും അവരുടെ ആരോഗ്യം നശിച്ച് പോകുകയും ചെയ്യും അവർക്ക് നമുക്ക് ഒരു യാതൊരു ബെനിഫിറ്റും ഇതിലൂടെ കിട്ടുകയും ചെയ്യുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തെക്കും നമ്മൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ലോകം അറിയുന്ന സ്പോർട്സ് മാൻ ആവുകയും നമ്മുടെ ഇന്ത്യക്ക് അഭിമാനം ആകുകയും ചെയ്യും അതിലൂടെ നമുക്ക് നല്ലൊരു മേന്മ കിട്ടുകയും ചെയ്യും നല്ലൊരു മേന്മ കിട്ടുകയും ചെയ്യും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലും കുട്ടികളെ വളർത്തിയെടുക്കുക സ്പോർട്സിലേയ്ക്ക് ചെ സ്പോർട്സിലേയ്ക്ക് നയിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്യും സ്പോർട്സിൽ എങ്ങും നമുക്ക് സ്പോർട്സില് നമുക്ക് ഇഷ്ടംപോലെ ട്രോഫികളും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും